ഞാനൊരു തയ്യൽക്കാരത്തിയാണ് ഞാൻ അന്നേരത്തേനു ഒരു ഉടുപ്പ് തയ്ച്ചു നല്ലൊരു ഉടുപ്പായിരുന്നു അത് ഞങ്ങളുടെ അടുത്തുള്ളൊരു കൊച്ചിന് സമ്മാനമായിട്ടു കൊടുത്ത് സമ്മാനമായിട്ടു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആ ഉടുപ്പ് കണ്ടിട്ട് പലരും പറഞ്ഞു ഒ നല്ല ഉടുപ്പാണ് ഇത് എവിടെയാ തൈപ്പിച്ചത് ഞങ്ങൾക്ക് തൈപ്പിക്കാൻ വേണ്ടിയാണെന്നു പറഞ്ഞു അങ്ങനെ ഞാനും വളരെയധികം ആൾക്കാർക്ക് അങ്ങനെയുള്ള ഉടുപ്പുകൾ തയ്ച്ചു കൊടുക്കുകയും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും നല്ല അഭിപ്രായങ്ങളെന്നെപ്പറ്റി പറയുകയൊക്കെ ചെയ്ത് അതെനിക്ക് വളരെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു ഞാനതുപോലെ തന്നെ പിള്ളേർക്ക് ഉടുപ്പുകളൊക്കെ ഇങ്ങനെ നല്ല ബെസ്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ വെച്ച് നല്ല മോഡേൺ ആയിട്ടൊക്കെ തയ്ച്ചു ഞാൻ സമ്മാനമായിട്ടൊക്കെ കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പം അതു ഞാൻ മറ്റുള്ളവർ കണ്ടിട്ട് എന്നോടു പറയും ഇന്ന പോലെ ആ കൊച്ചിനു തയ്ച്ച പോലെ ഒരെണ്ണം എനിക്കും ഞങ്ങൾക്കും അതുപോലെ എൻ്റെ മോൾക്ക് കൂടി തയ്ച്ചു തരണമെന്നു പറയും